തീർച്ചയായിട്ടും ഒരു കുട്ടികള് മലയാളം പഠിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് കാരണം ഇന്നത്തെ ചുറ്റുപാടും ചുറ്റുമുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണോന്നുണ്ടെങ്കിൽ പ്രാദേശീയ പത്രങ്ങളും അങ്ങനൊക്കെ വായിച്ചെങ്കിലേ എന്നാ തീർച്ചയായിട്ടും അത് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കത്തുള്ളു അപ്പോള് അതുപോലെതന്നെ നമ്മള് എല്ലാത്തരം ആളുകളുമായിട്ട് നമ്മള് കൂടുതലായിട്ട് ഇൻട്രാക്റ്റെയ്യണോന്നുണ്ടെങ്കിൽ കുട്ടികള് മലയാളം തീർച്ചയായിട്ടും പഠിച്ചിരിക്കണം ആ മലയാളത്തിന് കൂടുതല് പ്രാധാന്യം തീർച്ചയായിട്ടും ഇന്ന് സ്കൂളുകളുമൊക്കെ കൊടുക്കുന്നുണ്ട് ചില സ്കൂളുകള് പക്ഷേ ഇംഗ്ലീഷ് മീഡിയം അങ്ങനൊക്കെ ഉള്ള രൂപത്തിലേക്ക് പോകുന്നുണ്ട് പക്ഷെ എങ്കിൽപ്പോലും ഏറ്റവും പ്രധാനമാണ് കുട്ടികള് മലയാളം പഠിക്കുക എന്നുള്ളത് എങ്കിലേ നമുക്ക് ആ സമൂഹത്തിൽ ഇന്റെ കാര്യങ്ങള് മനസിലാക്കി സമൂഹത്തിന്റെ സ്പന്ദനങ്ങള് മനസ്സിലാക്കി തീർച്ചയായിട്ടും കുട്ടികൾക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കയുള്ളൂ